നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുമ്പോൾ എല്ലാം എന്താണ് എല്ലാ സ്ലാങ്ങും കൂടി അടങ്ങിയ ഒന്നാണ് നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ തന്നെ ഒരുപാട് സ്ലാങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല നമ്മള് നമ്മള ഉച്ചാരണം വരുക അതിലുള്ള പോലെ ആയിരിക്കില്ല എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ ആ വായിക്കണ പോലെ ആയിരിക്കില്ല നമ്മള് ഉച്ചരിക്കുക നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റേതായ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ നമ്മളെ ഭാഷയിൽ കാണാൻ പറ്റും സംസാരിക്കും അതേപോലെ എഴുത്താണ് എന്നെങ്കിൽ നമ്മള് എന്താണ് ഇപ്പോൾ എഴുത്ത് ഒരു നോവലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മള് വായിക്കും വായിക്കുമ്പോൾ അതിലുള്ള വ്യാകരണത്തിലായിരിക്കില്ല നമ്മള് നമ്മളെ ഉച്ചാരണത്തിൽ വരിക നമുക്ക് നമ്മുടേതായ ശൈലിയിലും നമ്മുടേതായ സംസാരത്തിലും സ്ലാങ്ങിലൊക്കെ മാറ്റം ഉണ്ടാകും അതാണ് നമ്മളുടെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്